പാത്രങ്ങൾ കഴുകുക എന്നൊള്ള ഒരിത് നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് പാത്രങ്ങൾ കഴുകിയാണല്ലോ ഉപയോഗിക്കാറുള്ളത് അപ്പോൾ കഴിച്ചതിനു ശേ കഴിക്കുന്നതിനു മുൻപ് പാത്രം ഭക്ഷണം വിളമ്പുന്നതിനു മുൻപ് നമ്മൾ പാത്രം കഴുകി വൃത്തിയായിട്ട് ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നത് ഈ ഭക്ഷണം കഴിച്ചതിനു ശേഷം എണ്ണമെഴുക്കുള്ള പാത്രങ്ങളൊക്കെ കഴുകാനായിട്ട് വിമ്മ് എക്സൽ ഇങ്ങനെയുള്ള സോപ്പ് ഉപയോഗിക്കാറുണ്ട് അല്ലേ ലിക്വിഡ് ആയിട്ടുള്ളതുണ്ട് ബാർ സോപ്പുണ്ട് അപ്പം സോപ്പ് ഇട്ടിട്ട് നമ്മൾ എണ്ണമെഴുക്കൊക്കെ പോകാൻ വേണ്ടി സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് അതു നന്നായിട്ട് ഉരച്ച് കഴുകി പാത്രങ്ങൾ നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നു അപ്പം ഇങ്ങനെയുള്ള പാത്രങ്ങൾ ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതെന്നാന്നു വെച്ചാൽ വിമ്മിൻ്റെ ലിക്വിഡാണുപയോഗിക്കുന്നത് ആദ്യമൊക്കെ വിമ്മിൻ്റെ ബാർ കട്ടയായിരുന്നു ഉപയോഗിച്ചിരുന്നത് പക്ഷേ അത് ഉപയോഗിക്കുമ്പം എന്നാ എന്നു വെച്ചാൽ അത് ഉണങ്ങി കഴിയുമ്പം ഒരു കൂട്ടം വെളുത്ത ഒരുപാട് ഒരു പൊടി പോലെ വരണു അപ്പതുകൊണ്ട് ഞാൻ ഇപ്പം അത് ഉപയോഗിക്കുന്നില്ല വിമ്മിൻ്റെ ലിക്വിഡ് ആണുപയോഗിക്കുക അതിലേക്ക് കുറച്ചു ഒഴിച്ചിട്ട് വെള്ളം കൂട്ടി ഉപയോഗിക്കുന്നു അപ്പം നന്നായിട്ടൊരു ആദ്യം നമ്മൾ കഴുകാനൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ അതിൻ്റെ ബാഡ് സ്മെൽ അതിൻ്റെ ചീത്ത മണമൊക്കെ പോയിട്ട് നല്ല വൃത്തിയായിട്ട് കിട്ടുന്നുണ്ട് അപ്പം എനിക്കിഷ്ടപ്പെട്ടത് ഇപ്പം വിമ്മാണ് പിന്നെ ഫെയറി എന്നു പറഞ്ഞിട്ടൊരെണ്ണം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അത് നമുക്ക് അങ്ങനെ കുറച്ചും കൂടി വില കൂടുതലായതു കൊണ്ടിട്ട് അത് പിന്നെ ഇതുപയോഗിക്കണില്ല ഞാനിപ്പം ഫെയറിയല്ല വിമ്മാണ് ഞാൻ ഉപയോഗിക്കണുള്ളത് അത് ഒത്തിരി നല്ലതായിട്ടാണ് എനിക്ക് തോന്നണത് കേട്ടോ പിന്നെ ആ പാത്രം വൃത്തിയാകാനും പാടം അങ്ങനെ ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും സോപ്പുപൊടി പോലെയൊന്നും ഇപ്പം പാത്രത്തിൽ കാണുന്നില്ല അപ്പം കരിയുള്ളതാണെങ്കിലും എണ്ണമെഴുക്കുള്ളതാണെങ്കിലും ഒക്കെ കഴുകാനായിട്ട് എനിക്കിഷ്ടപ്പെട്ടത് വിമ്മിൻ്റെ ലിക്വിഡാണ് ഞാനതു കൊണ്ട് അതാണിപ്പം ഉപയോഗിക്കുന്നത്